പിന്നെ എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയം മലയാളമായിരുന്നു വൈലോപ്പള്ളിയുടേയും അതുപോലെ കുഞ്ഞുണ്ണി മാഷുടെയും വൈക്കം മുഹമ്മദ് ബഷീർ ഇങ്ങനെ ഉള്ളവരുടെ ഒക്കെ കഥകളും കവിതകളും വായിച്ച് വളർന്നതാണ് ഞാൻ പക്ഷെ അതിൽ നിന്നും ഒക്കെ വിഭിന്നമായിട്ടാണ് ഇപ്പോഴത്തെ തലമുറയുടെ ചിന്തകളും പോക്കും കാരണം രക്ഷിതാക്കൾക്ക് അവരുടെ മക്കൾ മലയാളം പറയുന്നത് ഇഷ്ടമല്ല ഇംഗ്ലീഷ് സംസാരിക്കുക ഇംഗ്ലീഷിൽ നല്ലോണം മാർക്ക് വാങ്ങുക ഇതൊക്കെയാണ് ഇപ്പോൾ നടന്ന് കൊണ്ടിരിക്കുന്നത് അതുപോലെ കുട്ടികൾക്ക് മലയാളം ശരിക്ക് പറയാനോ ഉച്ചരിക്കാനോ കഴിയാത്ത ഒരു അവസ്ഥയൊക്കെയാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പോകുന്നത് ആരും സർക്കാർ സ്കൂളിൽ കുട്ടികളെ ചേർത്താൻ തന്നെ ഒരു താല്പര്യ കുറവാണ് എന്ന് വച്ചാൽ പിന്നെ പ്രൈവറ്റിൽ അത് നല്ലോണം ക്യാഷൊക്കെ കൊടുത്തിട്ട് ചേർക്കുക അവിടെ പഠിപ്പിക്കുക അത് പറയാൻ തന്നെ അവർക്ക് ഒരു ഒരു എന്താണ് പറയുക വലിയ ഒരു ഗമയായിട്ടാണ് തോന്നുന്നത് മലയാളത്തിനോട് അത്രയൊരു പുച്ഛമായിട്ടാണ് ഇപ്പോഴത്തെ തലമുറയുടെ പെരുമാറ്റവും അവർക്ക് മലയാളത്തിൽ സംസാരിക്കില്ല എന്തെങ്കിലുമൊരു കാര്യം ചോദിച്ചാൽ തന്നെ അത് ഇംഗ്ലീഷിലെ പറയുകയുള്ളൂ നമ്മുടെ മലയാള ഭാഷയെ അത്രയും അടിച്ചമർത്തുക എന്ന് പറഞ്ഞത് പോലെയാണ് ഇപ്പോഴത്തെ തലമുറയുടെ പോക്ക് പിന്നെ അതുപോലെ തന്നെയാണ് പണ്ടത്തെ ആളുകളുടെ ആ ഒരു കൂട്ടായ്മ സ്നേഹവും അതൊന്നും ഇപ്പോൾ ഇല്ല കാരണം പണ്ട് പറഞ്ഞാൽ നമുക്ക് പുസ്തകത്തിൽ പഠിക്കാൻ തന്നെ ഉണ്ടായിരുന്നത് ഒരു കൂട്ടായ്മയുടെ ഐക്യത്തിൻ്റെ ഒക്കെയായിരുന്നു അത് ഈ ഓരോ മലയാളം പുസ്തകങ്ങളിൽ ഓരോ കവികളായാലും സാഹിത്യകാരന്മാരായാലും അവർ എഴുതുന്ന കഥകളായാലും എല്ലാം നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസിന് തന്നെ ഒരു ഇത് വരും പക്ഷേ ഇപ്പോഴത്തെ മക്കൾ വായിക്കാനോ പിന്നേ ഒന്ന് ന്യൂസ് കാണാനോ ഒന്നും താല്പര്യമില്ല എല്ലാം ഫോണിലേക്ക് മാറിയിരിക്കുകയാണ് അതാണ് ഇപ്പോൾ ഈ ഈ നൂറ്റാണ്ടിൽ നടന്ന് കൊണ്ടിരിക്കുന്ന സമ്പ്രദായം ഇപ്പോൾ മലയാള ഭാഷയായ ഇത്രത്തെ ഇത്രത്തോളം അധപതിച്ച് കാണുന്നതിൽ എനിക്ക് തീരെ അതിനോട് യോജിക്കാൻ തോന്നുന്നില്ല